ആ അതെ അതെ ആ ആ ഓർഡർ ചെയ്തതോ ആ ഓക്കെ അത് ഡെലിവറി ഡെലിവറി ചെയ്തില്ലാ ആ ഞാൻ ഡെലിവറിക്ക് കസ്റ്റമർ ആയിരുന്നു ആളെ വിട്ടിട്ട് ഉണ്ടായിരുന്നല്ലോ അല്ല അല്ല ഉത്തരവാദിത്തം എല്ലാം ഉണ്ട് ഞാന് ബ്ലോക്ക് മറ്റ് കാരണം എന്തെങ്കിലും ആയിരിക്കും ഇല്ല സാർ ഇല്ല ഇപ്പം വരാട്ടോ

അത് ഇപ്പത്ത റോഡും കുഴികളെല്ലാം കാരണം ബ്ലോക്ക് ആയതായിരിക്കും സോറി സാർ ഞാൻ ഞങ്ങള് ആ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നാലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ആയിരിക്കും അല്ലാണ്ട് അങ്ങന വരാൻ ചാൻസ് ഇല്ല നമ്മൾ എപ്പളും ഡിലേ കറക്റ്റ് കറക്റ്റ് ടൈം ഇത് സെൻഡ് ചെയ്തത് ആണ് ഇല്ല ഇത് നമ്മൾ ഫസ്റ്റ് ടൈമ് ആണ് നമ്മൾ ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല നിങ്ങളുടെ ഉദ്ദേശം അല്ല ഇനി മുതല് ഇത് ശ്രദ്ധിക്കും